കേക്കുൾക്കുകയാണ് ഞങ്ങളുടെ പ്രദേശത്തുള്ള കുട്ടികൾ വിദ്യാഭ്യാസം എന്നു പറയുമ്പം വിദ്യാഭ്യാസം നന്നായിട്ട് ഗവർമെൻ്റ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടെങ്കിലും പിള്ളേർക്കത് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എൽ കെ ജി മുതൽ അങ്ങോട്ട് പിള്ളേർ പഠിക്കാൻ തുടങ്ങിയാൽ എന്തുമാത്രം ഭാരങ്ങളാണ് പിള്ളേർക്കും പിള്ളേരുടെ തലയിൽ കയറിവരാത്ത രീതിയിൽ അങ്ങനെയൊന്ന് അതല്ല ശരിക്കും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പിന്നെ കുറേ കളികളിലൂടേയും അങ്ങനെയാണ് കളികളിലൂടെയൊക്കെ വേണം പിള്ളേരെ പഠിപ്പിക്കാൻ അല്ലാതെ പിള്ളേരെ ഈ അക്ഷരങ്ങളും കാര്യങ്ങളും മാത്രം പഠിപ്പിച്ചാൽ പിള്ളേരൊത്തിരി പഠിത്തത്തോടും നിരുൽസാഹമായിപ്പോവും പിള്ളേർക്ക്

അതിന് മാതാപിതാക്കളെ എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നതെന്നു ചോദിച്ചാൽ ഇതിനെനിക്ക് ശരിക്കും പറഞ്ഞാൽ പിന്തുണയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നായെന്ന് ചോദിച്ചാൽ പിള്ളേരുടെ നാലുമണി വിട്ട് വരുമ്പോഴുള്ള ആ അവശതയും ക്ഷീണവും പഠിത്തവും എല്ലാം കൂടി ഓർക്കുമ്പോൾ ഇത്രയും ഭാരം പിള്ളേർക്ക് കൊടുക്കരുതെന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത് പിന്നെ അല്ലാതെ കുറേ വിദ്യാഭ്യാസം പുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമല്ല കുറേ പൊതുവായിട്ടുള്ള അറിവുകളും കൂടി പിള്ളേർക്ക് കൊടുത്ത് പിള്ളേരെ പഠിപ്പിക്കണോ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്നുവെച്ചാൽ കുറേ കളികൾ വേണം പിന്നെ മറ്റുള്ള വിവരങ്ങൾ അറിയാവുന്ന രീതിയിൽ എന്താ അതിനകത്ത് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെതന്നെ പാചകം അതിനകത്തു നിന്ന് പിന്നെ ഭാവിയിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഇതെല്ലാം ചെയ്ത് പിള്ളേരെ പഠിപ്പിച്ചിരുന്നെങ്കിൽ പിള്ളേർക്ക് നന്നായി ജോലി ചെയ്യാനും ഒക്കെയായിട്ടുള്ള അവസരങ്ങളുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത് വരുന്ന തലമുറയിലെ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ടോക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഇനി പൊയ്ക്കോട്ടെ ഉയ്യോ മതി മോനെ